ഈ അടുത്ത് ഞാൻ വാൻ ഹൗസൻ എന്ന കമ്പനിയുടെ ഒരു ജീൻസ് വാങ്ങി ഈ കമ്പനി എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു ഞാൻ ഒരുപാട് വസ്ത്രങ്ങൾ ആ കമ്പനിയിൽ നിന്നും വാങ്ങാറുണ്ടായിരുന്നു പക്ഷേ എന്നാലും ഒരു ദിവസം എനിക്ക് ആ കമ്പനീൻ്റെ ഭാഗത്തു നിന്നും വലിയ ഒരൂ ഊ മോശം സാഹചര്യം അനുഭവിക്കേണ്ടി വന്നു കാരണം അവരെനിക്ക് തന്ന ജീൻസ് വളരെ മോ എന്താ പറയുക തുന്നൽ അതിൻ്റെ തുന്നിയ ഭാഗങ്ങളൊക്കെ അത്ര നല്ല രീതിയിലായിരുന്നില്ല ആയതിനാൽ എനിക്ക് അതുപയോഗശൂന്യമായി ഇടേണ്ടി വന്നു ഇത് ഞാൻ വീണ്ടും കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇതു പരിഹരിക്കാൻ സാധിക്കുന്നതാണോ എന്നു ചോദിച്ചപ്പോൾ അല്ല എന്നാണു കിട്ടിയ മറുപടി ആയതിനാൽ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു